ഇന്ത്യയുടെ സ്വന്തന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം അതിലെ പ്രധാന നേതാക്കളെക്കുറിച്ചാണ് അതിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗാന്ധിജി തന്നെയാണ് ഗാന്ധിജി നമ്മുടെ ഗാന്ധിജിയുടെ ജീവിത ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരെ ചെറുപ്പത്തിലെ തന്നെ ഗാന്ധിജി നിയമം പഠിക്കാനായിട്ട് ലണ്ടനിൽ പോയി ആ ലണ്ടനിൽ വച്ചിട്ട് ഗാന്ധിജിക്ക് അവർ ഇന്ത്യക്കാരോടുള്ള പെരുമാറ്റ രീതി അതിൽ വംശീയ വിവേചനം കാരണമാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആൾ വന്നത് ഇൻസ്പയറായിട്ട് സ്വന്തന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് പിന്നീട് നാട്ടിൽ വന്നിട്ട് അതിൽ ഉപ്പിനു വരെ നികുതി ചുമത്തിയിരുന്നത് കണ്ടപ്പോഴാണ് ഗാന്ധിജി ദണ്ഡിയാത്ര ആ ഒരു സമരത്തിൽ പങ്കെടുത്തത് ഗാന്ധിജിയുടെ രീതി എപ്പോഴും ഒരു അഹിംസ പരമായിട്ടായിരുന്നു അതായത് വലിയ വഴക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം നേടണം എന്നായിരുന്നു ഗാന്ധിജിയുടെ ആ ഒരു ലക്ഷ്യം അതിലദ്ദേഹം വിജയം കൊണ്ടു അതുകൊണ്ട് രാജ്യം അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി അംഗീകരിച്ചു പിന്നെ പറയാനുള്ളത് പിന്നെ അടുത്ത നേതാവായിട്ട് പറയാനുള്ളത് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹവും വക്കീലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരുപാടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്ന അദ്ദേഹം ആ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെയും കൂടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മാറി ഇവർ രണ്ട് പേരും ഒരു അംഹിംസാ രീതിയാണ് പിന്തുടർന്നു എന്നുണ്ടെങ്കിൽ അടുത്തൊരു വിപ്ലവകാരിയായ നേതാവായിരുന്നു ഭഗത് സിങ്ങ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒക്കെ വളരെ ഇൻസ്പയറായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഭഗത് സിങ്ങ് ഭഗത് സിങ്ങ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൂക്കിലേറ്റപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ നവജവാൻ എന്ന് പറഞ്ഞിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന വളരെ പ്രശസ്തമാണ് ചൗരി ചൗരാ സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആൾ ഈ ഒരു വിപ്ലവത്തിലേക്ക് കൂടുതലായിട്ട് വരുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തത്